എടീ നിൻറ്റെ അവിടെ വീട്ടിൻറ്റടുത്ത് എവിടേങ്കിലും ട്രഡീഷണൽ ഹൗസ് ടൈപ്പ് അങ്ങനെ എന്തേലും വരുന്നുണ്ടോ ഓൾഡ് ടൈപ്പ്

ആ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരു വീട്ടിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടേ അപ്പം പുറത്തുന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അവർ ഈ മെയിനായിട്ട് ആ അതായത് അവർ മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ അവർ മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ ഈ ടൗണിലൊക്കെ ഇതായിട്ട് വരുന്നവരല്ലേ അപ്പം അവർക്ക് ഈ വലിയ ഫ്ലാറ്റും കാര്യങ്ങളോടൊന്നും വലിയ ഇൻറ്ററസ്റ്റൊന്നും ഇല്ലാത്ത ടീംസാ അപ്പം നമുക്ക് കുറച്ച് ഓൾഡ് ടൈപ്പ് അങ്ങനെ എന്തേലും ചെയ്ത് കൊടുക്കാന്ന് കരുതീട്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് നമ്മുടെ വീട്ടിലെ പരിപാടി ആണല്ലോ നിനക്ക് കമ്മീഷൻ എന്തേലും വേണെ നമ്മൾ പേയ്മെൻറ്റിൻറ്റെ കാര്യം നോക്കുന്നില്ല എത്ര ആണേലും വിഷയം ഒന്നും ഇല്ല നിനക്ക് വേണമെങ്കിൽ എന്തേലും വേണമെങ്ങി നമ്മൾ അത് ചെയ്ത് തരാം അവർ ഒരു പത്ത് മുപ്പത് പേരുടെടുത്തെങ്കിലും ഉണ്ടാവും ആ നമുക്ക് ഒറ്റ ഒരു ഇതായിട്ട് കിട്ടുവാണെ അത്രയും ബെറ്ററ് ആ ഓക്കെ

ആ ആ മറ്റെ നാലുകെട്ട് പോലത്തെ ടൈപ്പാ ആണല്ലേ ആ പിന്നെ നമുക്ക് ഫുഡ്ഡും കാര്യങ്ങൾ ഒന്നും വിഷയം വരുന്നില്ല ഫണ്ട് നമ്മൾ ആണ് ഇറക്കുന്നത് കാരണം നമ്മുടെ വീട്ടിലെ ഒരു ഫങ്ക്ഷന് വേണ്ടീട്ട് വരുന്നതാണ് അപ്പം നമ്മൾ തന്നെ ആണ് ക്യാഷും കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഒന്നും ഇല്ല നമുക്ക് എത്ര ബഡ്ജറ്റ് ആയാലും പ്രശ്നം ഒന്നും ഇല്ല പിന്നെ ഫുഡ്ഡും കാര്യങ്ങൾ ഒക്കെ അത് നമ്മൾ ഇപ്പം പുറത്തുന്ന് അറേഞ്ച് ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട് അവർ അവിടന്ന് നല്ല എന്താ പറയാ നമുക്ക് ഇങ്ങന ഓവർ എന്താ പറയാ വലിയ വലിയ ഫുഡ്ഡ് ഐറ്റംസ് അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് ഈ മന്തി അങ്ങനത്ത സാധനങ്ങൾ ഒന്നും വേണ്ട അവർക്ക് എന്താ പറയാ കുറച്ച് സദ്യ ടൈപ്പ് അങ്ങനെ ഏതെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്ഡ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതീട്ടാണ്

അറേഞ്ച് ചെയ്ത് തരും അല്ലേ ആ നീ എന്തായാലും ഒന്ന് അവരോട് റേറ്റും കാര്യങ്ങളും ഒന്ന് ചോദിച്ച് നോക്ക് പിന്നെ നമ്മളുടെ ഡേറ്റ് എന്തായാലും ഒരു ടൂ വീക്സ് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് നിന്നെ ഞാൻ വിളിക്കാം അപ്പം നീ ആ ഡേറ്റിൽ അത് ഫ്രീ ആണോന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് എന്നോട് ഒന്ന് പറയണം എന്തായാലും ആ നീ എന്തായാലും ചോദിച്ചു നോക്ക് ആ എന്തേലും ചോദിച്ചിട്ട് വിളിക്ക്